ബൈക്ക് ഓടിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഹെൽമെറ്റ് ഹെൽമറ്റ് എടുക്കാണ്ടുണ്ടെങ്കിൽ യാത്ര പോകണ്ടായെന്ന് തന്നെ പറയാം ഞമ്മടെ സേഫ്റ്റി ആണല്ലോ ഞമ്മക്ക് പ്രധാനം ഇപ്പം നമ്മൾ ന്യൂസിലൊക്കെ കാണുന്നത് തന്നെയാണ് ഈ ഹെൽമറ്റ് യൂസ് ചെയ്യാതെ ഹെൽമറ്റ് യൂസ് ചെയ്താലും അപകടം ഉണ്ടാകുന്നുണ്ട് ഇല്ലയെന്നല്ല എന്നാലും അപകടത്തിൻ്റെ ആഘാതം ഒരു പരിധി വരെ ഹെൽമറ്റ് യൂസ് ചെയ്യുന്നതോടെ നമുക്ക് കുറക്കാൻ പറ്റും പിന്നെ ഇപ്പം എ ഐ ക്യാമറയുടെ ഒക്കെ കാലാമാണല്ലോ അപ്പോൾ എല്ലാടേം ക്യാമറയാണ് ഫൈൻ അപ്പം ഞമ്മൾ ഞമ്മള സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്ന് ഓർക്കുക അപ്പോൾ ഹെൽമറ്റ് മറന്നു പോകാണ്ടെടുത്തിട്ട് യാത്ര ചെയ്യുക പിന്നെ രേഖകൾ ലൈസൻസ് ലൈസൻസ് വണ്ടീൻ്റെ ആർ സി ബുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോളും വണ്ടിയിൽ തന്നെ സൂക്ഷിക്കേണ്ടതാണ് ലൈസൻസ് എപ്പോലും കൈയ്യിലുണ്ടാകേണ്ടതാണ് ഫോണിൽ ഫോട്ടോ എടുത്തിട്ടാണെങ്കിലും അല്ലെങ്കിലും കൈയ്യിൽ മെയിനായിട്ട് സൂക്ഷിക്കേണ്ട ഒരു സാധനം ലൈസൻസ് തന്നെയാണ് പിന്നെ വണ്ടീൻ്റെ ബുക്ക് പേപ്പർ എപ്പോൾ ചെക്കിങ് ഉണ്ടാകുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഞമ്മടെ കൈയ്യിലെല്ലാം ഞമ്മൾ കരുതി ഇരിക്കേണ്ടതാണ്